ഡിജിറ്റല് ചിത്ര രചനയ്ക്കായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറിന്റെ ആപ്പ് എന്ന് പറയുമ്പോൾ അത് സ്കെച്ച് ബുക്ക് ആണ് സ്കെച്ച് ബുക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് ആവശ്യത്തിന് ഞാൻ പെയിന്റ് ചെയ്യാറുണ്ട് അപ്പം അതുകൊണ്ടുതന്നെ എനിക്ക് ഇങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഇതിൽ ചെയ്യുന്നത് നമ്മളിങ്ങനെ ഓരോ ഫോട്ടോസ് എല്ലാം കാണുമ്പോൾ നമുക്ക് തോന്നിയിരുന്നു എങ്ങനെയാണ് ഇവർ ഈ പടം വരയ്ക്കുന്നത് എന്ന് അപ്പം അങ്ങനെയൊരു താല്പര്യം വെച്ചിട്ടാണ് ഡിജിറ്റല് ചിത്രരചന എന്നുള്ള ഒരു ആശയത്തിലോട്ട് ഞാൻ വന്നത് അപ്പോൾ അതിന് ആദ്യമായിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ സ്കെച്ച്ബുക്ക് എന്നു പറഞ്ഞുള്ള ആപ്പ് ഇന്സ്റ്റാൾ ചെയ്തു അതിൽ ഓരോ ഓരോ ടൂളുകളായി എടുത്തിട്ട് ചെയ്തു നോക്കി തുടങ്ങുകയാണ് ചെയ്തത് അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ വളരെ എന്താണ് പറയുക ചെയ്തു നോക്കണമെന്നുള്ള ഒരു ത്വര പിന്നെയും പിന്നെയും വന്നുതുടങ്ങി അങ്ങനെ അത് ഇഷ്ടപ്പെട്ടു അപ്പ ഡിജിറ്റല് ചിത്രരചനയും പരമ്പരാഗത ചിത്രരചനയും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് ഈ ടൂള്സിലൊക്കെ തന്നെയാണ് പലതരം ടൂളുകൾ ഉപയോഗിച്ച് നമുക്ക് പലതരം കളറിൽ നമുക്ക് എന്തെങ്കിലും ചേയ്ഞ്ചസ് അല്ലെങ്കിൽ ഏന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിലും നമുക്ക് അതേ സമയത്ത് തന്നെ ഇത് എപ്പോഴാണ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് പറ്റുകയാണെങ്കില് അത് എപ്പോഴാണോ പറ്റുന്നത് ആ സമയം തന്നെ അത് തിരുത്തി കൊണ്ട് പോവാനായിട്ട് പറ്റും പക്ഷേ പരമ്പരാഗത ചിത്രരചനയിൽ നമ്മൾ ഇപ്പോൾ ഒരു കളർ യൂസ് ചെയ്യുന്നത് തന്നെ എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ ആ ചിത്രത്തിന്റെ ഭംഗി അപ്പാടെ തന്നെ പോവുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ആ ആദ്യം തൊട്ടിട്ട് വരയ്ക്കേണ്ട ഒരാവശ്യം വരുകയാണ് പക്ഷേ ഡിജിറ്റലി നമ്മൾ വരയ്ക്കുമ്പോൾ എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പം വേണമെന്നുണ്ടെങ്കിലും അതിനനുസരിച്ചിട്ട് മാറ്റം വരുത്താനായിട്ട് സാധിക്കും